ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലവും ഒക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ടും ഈ വൃത്തി ഹീനമായിട്ടുള്ള ഓടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലെ അതിപ്പോൾ എന്താ പറയുക പുറമെയുള്ള വെള്ളങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ടൗണിലേക്ക് എത്തി കഴിഞ്ഞാൽ ഓടയിലെ വെള്ളമൊക്കെ നേരെ നിറഞ്ഞ് അങ്ങനെ ഒഴുകി കഴിയുമ്പോൾ ആൾക്കാർ അതില്കൂടി നടക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പകർച്ചവ്യാധിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ വൃത്തി ഹീനമായിട്ടുള്ള ഒരു ടൗൺ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കാൻ വെണ്ടിയിട്ട് ഗവൺമെൻറും നമ്മളുടെ അതായത് നഗരസഭയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പകർച്ചവ്യാധിയും കാര്യങ്ങളൊന്നും അങ്ങനെ വരാതെ വരാതെ നമ്മുക്ക് സംരക്ഷിക്കാം വേണ്ടി പറ്റും പിന്നെ ഇപ്പോൾ കുറെ ആൾക്കാർക്ക് അതായത് കുറെ പിള്ളേർക്ക് പോഷകാഹാര കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്കണവാടികളിൽ കൂടുതലായിട്ടും അമൃതംപൊടി കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടി നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന തലമുറയെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്